ഹലോ മലബാർ ഹോസ് ഹോട്ട് റെസ്റ്റോറൻറ്റല്ലേ എനിക്ക് എന്താ പറയുക ചൂടുള്ളൊരു പാനി കോഫി വേണം അപ്പം അത് എനിക്ക് കുറച്ച് ദൂരം വരെ പോകാന് വേണ്ടീയിട്ടാണ് അപ്പോൾ അതെനിക്ക് എത്രത്തോളം ചൂട് കുറയാതെ കിട്ടുമോ അത്രത്തോളം നല്ലതാണ് അപ്പോൾ എനിക്ക് അതിന്റെ പാക്കിങ്ങ് അതുകൊണ്ട് നല്ലൊരു പാക്കിങ്ങ് തന്നെ ആക്കി തരണം അപ്പോൾ അത് എത്രത്തോളം നല്ല ചൂടാറാതെ ഇരിക്കും അത്രത്തോളം നല്ലതാണ് നിങ്ങളുടെ പാക്കിങ്ങിലൂടെ അപ്പോൾ അത് എനിക്ക് എന്താ പറയുക അത് ചൂട് ആറാതെ നിങ്ങൾ എനിക്ക് പാക്ക് ചെയ്ത് തരേണ്ടതാണ് പിന്നെ അപ്പോൾ എനിക്ക് ഇവിടുന്നൊരു കുറച്ചു ഒരു ഒന്നൊന്നര കിലോമീറ്ററിന്റെ ഒരു ഇതുണ്ട് അപ്പോൾ ദൂരമുണ്ട് അപ്പോൾ ആ അതിനനുസരിച്ചെനിക്ക് പാക്കിങ്ങ് ചെയ്ത് തരണം എന്നുവെച്ചാൽ എന്ന് അവിടെ പോയിക്കഴിഞ്ഞാൽ തണു തണുത്ത പ്രദേശം ആയതുകൊണ്ട് തന്നെ നമുക്ക് തണുപ്പ് ആയിക്കഴിഞ്ഞാൽ അത് കഴിക്കാന് പറ്റില്ല അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റി ഉള്ള പാക്കിങ്ങില് തരാന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഞാനീ ഇത്ര സമയത്തിനുള്ളില് അവിടെയെത്തും അപ്പോൾ നിങ്ങളത് പാക്ക് ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ